ആ ചേട്ടാ എനിക്ക് ഒരു ഓട്ടം പോവണമായിരുന്നു എനിക്ക് ഇത് ഏറണാകുളം വരെ പോവണം പോവാനായിരുന്നു കയറിക്കോട്ടേ ഞാൻ കയറിക്കോട്ടേ എനിക്ക് ആനക്കയത്ത് നിന്ന് രണ്ടുപേരും കൂടി ഉണ്ട് കുഴപ്പം ഇല്ലല്ലോ അതെയതെ അതെ അല്ലേ ഏട്ടാ എത്ര ദൂരം ഉണ്ടാവും അങ്ങോട്ട് ഏകദേശം ആ ആ എത്രയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നന്നായിരുന്നു അല്ല ചേട്ടൻ പറയൂ അവിടെ എത്തിയിട്ട് പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യം ഇല്ലല്ലോ ആയിരത്തഞ്ഞൂറ് ജാസ്തിയാണ് ലാസ്റ്റ് എത്രയാണ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ വെയ്റ്റിംഗ് ചാർജ് ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് മണിക്കൂർ നിൽക്കേണ്ടി വരും ചേട്ടാ അതെയതെ ഓക്കെ ഞാൻ ഒരു ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഇരുനൂറ് രൂപ തരാം എന്തായാലും വെയ്റ്റിങ്ങ് ചാർജ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ എനിക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് വന്നത് ഓട്ടോ ചാർജ് ചേട്ടൻ അത്രയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആയിരത്തി ഇരുനൂറ് രൂപ ഞാൻ തരാം വെയ്റ്റിങ് ചാർജ് അടക്കം അത് പ്രശ്നമില്ല ഓക്കെ ഓക്കെ ഏട്ടൻ എന്തായാലും പെട്രോൾ ഒഴിച്ച് ഓടുന്നത് തന്നെ അല്ലേ ഒരു ദിവസത്തെ വെയ്റ്റിങ്ങ് ചാർജ് വരുന്നതല്ലേ

ഓക്കെ ഈ പോവുന്ന വഴിക്ക് എനിക്ക് തൃശ്ശൂർ ഒന്നുരണ്ട് സ്ഥലത്തേക്ക് പോകാനുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ കുറച്ച് ഉള്ളിലേക്കാണ് ഉള്ളിലേക്കുള്ള റൂട്ട് ആണ്

എങ്ങനെയാണ് അതെ അതെ അതെ അതെ അവിടെ വലിയ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഒരു പാക്കറ്റ് കൊടുക്കാനുണ്ട് അത് കൊടുത്തിട്ട് പോരുക അത്രയേ ഉള്ളൂ

അതെ അതെ പോവാം അത് കുഴപ്പം ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ജസ്റ്റ് ഒന്ന് കൊടുത്താൽ കൊടുക്കുക പോരുക ഒരു കടയിൽ സാധനം എൽപ്പിക്കാനുണ്ട് അത്രയേ ഉള്ളൂ

അപ്പോൾ എന്നാൽ പോവാം ചേട്ടാ ഉം ഓക്കെ ഓക്കെ